എൻ്റെ അടുത്തുള്ള സ്കൂളെന്നു പറയുമ്പോൾ നല്ല സ്കൂളുകളാണ് എനിക്ക് എല്ലാ സ്കൂളുകളും ഇഷ്ടം തന്നെയാണ് പക്ഷേ ഞാൻ പറയാം ഞാൻ പല സ്കൂളിലും പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളെന്നു പറഞ്ഞാൽ ജി ജി എച്ച് എസ് കല്ലാർ എന്നു പറയുന്ന സ്കൂളാണ് അവിടെ ഞാൻ എട്ട് തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയത് എട്ട് മുതൽ പത്ത് വരെ പഠിച്ചാലും എനിക്ക് അവിടുന്ന് ആ സ്കൂളും സാധാരണ സ്കൂൾ എല്ലാ താഴ്ന്ന ആൾക്കാരും എല്ലാം എല്ലാം എല്ലാവരും പൈസ ഉള്ളവരോ പൈസ ഇല്ലാത്തവനോ എല്ലാവരും തന്നെ ആ ഒരു അവിടെയുണ്ട് അവിടെയുള്ള ഒരു കൂട്ടുകെട്ടെന്നു പറയുമ്പം വലിയൊരു സെറ്റപ്പ് ആണ് ക്ലാസ്സിൽ പണക്കാരോ വലിയ ചെറിയ ആൾക്കാരോ താന്ന ജാതിക്കാരോ ജാതിയെന്നോ ഒന്നുമില്ല എല്ലാവരും ഒരേ രീതി ഭക്ഷണം കഴിക്കുന്നു ഫുഡ് കഴിക്കുന്നു പഠിക്കുന്നു പഠിച്ചില്ലേ പഠിക്കത്തില്ല അങ്ങനെ നമ്മൾ എല്ലാം സെറ്റപ്പായിട്ടാണ് നടക്കുന്നത് ഇപ്പം എന്താ പറയുക അവിടെ സ്പോർട്സിനാണ് ഭയങ്കര മുൻതൂക്കമാണ് നൽകിയിരുന്നത് പിന്നെ എല്ലാ പരിപാടിയും ഏതു സമയം നടക്കുമായിരുന്നു എല്ലാ പരിപാറ്റിയെന്നു പറയുമ്പം കരോട്ട എൻ സി സി എസ് പി സി അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയെന്നു പറയുമ്പം വലിയ ടൗണൊന്നും അല്ല സാധാരണ ഒരു ചെറിയ സ്കൂൾ എല്ലാ എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ സ്കൂളുണ്ട്